ഇപ്പോൾ നമ്മള് ഹോട്ടലുകളിൽ നിന്നൊക്കെ കഴിക്കാറുള്ളതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ പല രീതിയിലുള്ള ഭക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ കഴിക്കാറുണ്ട് ഇപ്പോൾ ഞാൻ ഈ അടുത്ത് കഴിച്ചിട്ടുള്ളൊരു ഭക്ഷണം എന്ന് പറഞ്ഞ് കഴിഞ്ഞാല് നമ്മളെ ഇവിടെ തന്നെ ഒരു റസ്റ്റോറന്റിൽനിന്നാണ് ഞാൻ കഴിക്കാറുള്ളത് കഴിക്കാറുള്ളത് എന്നല്ല കഴിച്ചത് അപ്പോൾ അവിടുന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ വൈഫിന് ഭയങ്കര ആഗ്രഹം മന്തി കഴിക്കണമെന്ന് അപ്പോൾ ഞാനവിടുന്ന് മന്തിയും കാര്യങ്ങളൊക്കെ ഞാൻ കഴിക്ക് കഴിച്ചായിരുന്നു അപ്പോൾ നല്ല അടിപൊളി മന്തിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അത്യാവശ്യം എക്സ്പെൻസാണ് കാരണം എന്താണെന്ന് വച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിലുള്ള പൈസ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അങ്ങനെയുള്ള റെസ്റ്റോറന്റുകളിലൊക്കെ പോയിട്ട് കാര്യമുള്ളൂ അപ്പോൾ അപ്പോൾ അത് കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നേയെന്ന് പറഞ്ഞാൽ ഈ തട്ട് കടകളിൽ നിന്ന് കൂടുതലായിട്ടും പത്തലും ബീഫ് കറിയും പിന്നെ ചിക്കനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ടും കഴിക്കാറുള്ളത് അപ്പോൾ പല രീതിയിലും പല കാര്യങ്ങളിലും നമ്മള് ചിലപ്പോൾ ഓരോ സ്ഥലങ്ങളിലൊക്കെ വച്ചിട്ടാണ് കഴിക്കാറ് ഇപ്പോൾ രാത്രി പൊതുവേയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ തട്ട് കടകളിൽ നിന്നാണ് കഴിക്കാറ് പിന്നെ പകലെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മള് കൂടുതലായിട്ടും ഹോട്ടലുകളിൽ നിന്നാണ് കൂടുതലായിട്ടും കഴിക്കാറുള്ളത് പിന്നെ അപ്പം ഈ പകല് കൂടുതലായിട്ടും തട്ട് കടകളും കാര്യങ്ങളൊക്കെ കുറവായിരിക്കും നമുക്ക് കൂടുതലായിട്ടും രാത്രിയാണ് തട്ടുകടകളും കാര്യങ്ങളൊക്കെ എപ്പോഴും ഉണ്ടാവുകയെന്ന് വേണമെങ്കിൽ പറയാം